ഹലോ പൗർണ്ണമി റസ്റ്റോറൻ്റ് ആണോ ഞാൻ ഒരു ഒരു സദ്യ ഓർഡറ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങളുടെ റസ്റ്റോറൻ്റിൽ ആ സദ്യ ഞങ്ങൾക്ക് തരാൻ കഴിയുമോ അൻപത് പേര് അടങ്ങുന്ന ഒരു പാർട്ടിക്ക് ബർത്ത്ഡേ പാർട്ടിയാണ് കുഞ്ഞുങ്ങളും എല്ലാം അടങ്ങിയതാണ് അത് അടുത്ത ആഴ്ചയിൽ ആവശ്യമാണ് നിങ്ങൾ മസാല കൂട്ടുകൾ അധികം ചേരാത്ത ആ കുട്ടികളുള്ളതു കാരണം അധികം ചേരാത്ത ഭക്ഷണം സദ്യ അൻപത് പേർക്ക് കഴിക്കാനാണ് അതിന് മൂന്ന് പായസവും അതിന് ചേരുന്ന എല്ലാ കറി കറികളും ഉണ്ടാകണം അത് കൃത്യമായി പന്ത്രണ്ടര സമയത്ത് എത്തിക്കാൻ കഴിയുമോ എങ്കിൽ ഇലയും അതുപോലെയുള്ള വെള്ളം അതുപോലെയുള്ള എല്ലാ അത് എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ടാകണം കഴിയുമെങ്കിൽ നിങ്ങളെ വിളിക്കാം എന്നെ വിളിക്കുക ഞാൻ ഓർഡർ ചെയ്യുന്നതിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക